എഴുത്തിനെക്കുറിച്ച് പറയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയണത് എഴുതാനായിട്ട് ഉള്ള ഒരു ശൂന്യത തന്നെയാണ് എഴുത്തിനെ ഞാൻ ആശയങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് കേട്ടാൽ ആദ്യം തന്നെ എഴുത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ശൂന്യത തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ എഴുതാൻ നമ്മുടെ മനസ്സ് പോലെ തന്നെ ശൂന്യതയും അതുപോലെ പ്രകൃതിരമണീയതയും വേണ്ടത് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ഘടകം ആണ് ഞാനേറ്റം കൂടുതൽ എനിക്കെഴുതാൻ എഴുതാനായാലും അതുപോലെ തന്നെ ചിന്തകളിലും എല്ലാം പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ് പ്രകൃതിയെന്നു പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഓടിവരുന്ന അനവധി കാര്യങ്ങളുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓടി വരുന്ന രൂപങ്ങളായിരുന്നാൽ കാട് കുന്ന് അരുവി വെള്ളച്ചാട്ടം അങ്ങനെ ഒരുപാട് കാഴ്ചകളും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടും ശബ്ദങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലെ പ്രകൃതിയെന്നു പറയുമ്പോഴത്തേക്കും ഓടി വരുന്ന ഒട്ടനേകം കാര്യങ്ങൾ തന്നെയുണ്ട് അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഈ വെള്ളത്തിൻ്റെ കള കള സ ശബ്ദം കുയിലിൻ്റെ സ്വരം അരുവി മഴ കാറ്റ് മഴയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദം അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയെക്കുറിച്ച് പറയാണെങ്കിൽ അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റോം കൂടുതൽ ഇഷ്ടവും പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കാനായിട്ടാണ് പ്രകൃതി നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് കാറ്റ് മഴ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഒക്കെ പ്രകൃതി നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച് എഴുതാനെനിക്ക് വളരെയധികം ഇൻട്രെസ്റ്റ് ആയിട്ടുള്ള താല്പര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുത്തിലായാലും ഏറ്റവും കൂടുതൽ എനിക്ക് എഴുതാൻ താല്പര്യവും പ്രകൃതി പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ് പ്രകൃതിടെ ആ വെയിലായിരുന്നാലും ചൂടായിരുന്നാലും അങ്ങനെ ഓരോ ടോപ്പിക്കും നമുക്ക് എടുത്തെടുത്ത് അതിനെക്കുറിച്ച് നമുക്ക് വർണിക്കാനായിട്ട് കഴിയും കാറ്റിനെക്കുറിച്ചു വർണിക്കാം അതുപോലെ മഴ വെയിൽ വേനൽക്കാലം ശീതകാലം അങ്ങനെ ഒരുപാട് ശൈത്യകാലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയെക്കുറിച്ച് പറയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കിളികളെക്കുറിച്ച് അവ നമ്മളോട് ഓരോ ആൾക്കാരോട് സംസാരിക്കുന്നത് അങ് അതിൻ്റെ ശബ്ദങ്ങൾ അതിൻ്റെ ആ കൂകുന്ന ആ ഒരു സ്വരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും മഴയായാലും ആ മഴയുടെ ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടായിരുന്നാലും ഇടിമുഴക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിന്നലായാലും എല്ലാം നമുക്ക് ഒരുപാടൊരുപാടൊരുപാട് കാര്യങ്ങൾ പ്രകൃതിയെക്കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എഴുത്തിൽ എഴുത്തിൻ്റെ ആ ഒരിതുവച്ച് നോക്കുവാണെങ്കിൽ എനിക്കേറ്റവും കൂടുതലും താല്പര്യമുള്ളത് പ്രകൃതിയെക്കുറിച്ച് എഴുതാനും അവയെക്കുറിച്ച് സംസാരിക്കാനും അവയെക്കുറിച്ച് ചിന്തിക്കാനും അതുപോലെതന്നെ അവയെക്കുറിച്ച് വർണിക്കാനും ഒക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഴുത്തിൽ താല്പര്യം പ്രകൃതിയോട് തന്നെയാണ്